എൻ്റെ എൻ്റെ സംസഥാനത്തിൻ്റെ സാംസ്കാരിക സ്വത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ മലയാള ഭാഷയുടെ പങ്ക് വളരെ വലുതാണ് കാരണം മലയാള ഭാഷ എന്നു പറയുന്നത് എൻ്റെ മാതൃഭാഷ ആയതുകൊണ്ടു തന്നെയല്ല ഇത് ഒരുപാട് സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഭാഷയാണ് ഈ ഭാഷയിൽ തന്നെ ഒരുപാട് ഒരുപാട് ഒരുപാട് പൈതൃകം ഉള്ള ഭാഷയാണ് ഒരുപാട് സമ്പന്നമായ ഭാഷയാണ് ഈ മലയാള ഭാഷയിലാണ് പല പല കഥകൾ പല പല സംസഥാനം ഈ ഈ സംസഥാനം നമ്മുടെ കേരള സംസ്ഥാനത്തെ പ്രതിനിധി കഥകളി തുള്ളൽ ഓട്ടംതുള്ളൽ അതുപോലുള്ള കലകൾ അതുപോലെത്തന്നെ പല ആട്ടക്കഥകളും നാടകം അതൊക്കെ ഒരുപാട് ഈ ഭാഷയാണ് ഇതിനെയൊക്കെ ടെവേലോപ്ഡ് ഡെവലപ്പ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അതായത് ഇതിനെയൊക്കെ രൂപപ്പെടുത്തിയിരിക്കുന്നത് ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ രൂപപ്പെട്ടുവന്നിരിക്കുന്നത് അതുകൊണ്ടുതന്നെ സംസ്ഥാനം ഇതൊക്കെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൈതൃകത്തെയും സാംസ്കാരികതയെയും ഒക്കെ വിളിച്ചോതുന്ന കലകളാണ് അപ്പം ഈ മലയാളഭാഷ എന്നു പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് നമ്മുടെ സംസ്കാരത്തെ രൂപപ്പെടുത്താനും നമ്മുടെ സ്വത്വത്തെ നമ്മൾ എന്താണ് നമ്മുടെ കൾച്ചറൽ ഐഡൻറിറ്റി എന്താണ് എന്ന് വെളിപ്പെടുത്തുന്നതിൽ വളരെയധികം പ്രാധാന്യം വഹിച്ച ഒരു ഭാഷയാണ് നമ്മുടെ മലയാളഭാഷ എന്നുപറയുന്നത് അതിനെ അഭിമാനപൂർവം തന്നെ കാണുന്നു ഒരു മലയാളി എന്ന രീതിയിൽ വളരെ അഭിമാനത്തോടുകൂടെ ഇതിനെ കാണുന്നു